സാങ്കേതിക വിദ്യയുടെ അതിപ്രസരണം കാരണം നമുക്ക് ഇപ്പം തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളുകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒക്കെ കുട്ടികാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുമ്പം തൊട്ട് തന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയേയും അണ്ണനേയും മാമനെയും പിള്ളാരെയും ഒക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയും നടന്നും അവരെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മളും കഴിച്ച് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് അങ്ങോട്ടും കൊടുത്ത് അങ്ങനെയൊക്കെ വളരെ കളിച്ച് ചിരിച്ച് പാടത്തും ആടിന് ആടിനും പ്ലാവില കുത്താനും ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾ അവരെ അയലത്തെ വീട്ടിൽ നിന്നും എല്ലാം പോകുകയും വരികയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു ഇപ്പോഴത്തെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കുറും പഠനാവശ്യത്തിനായിട്ടാണെങ്കിലും അല്ലാതെയും തന്നെ അവർ മൊബൈലിൻ്റെ ഉപയോഗത്തിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് പണ്ട് പണ്ട് പാട്ട് കേൾക്കാൻ റേഡിയോകളും റേഡിയോകൾ ഉപയോഗിച്ചുള്ള പാട്ട് അതേപോലെ ടേപ്പ് റെക്കോർഡറുകളും കൊണ്ടുവന്നിട്ട് അതിനകത്ത് കാസറ്റുകളൊക്കെ ഇട്ട് പാട്ടൊക്കെ കേൾക്കുന്ന ഒരു സാഹചര്യം ഒരു സന്തോഷകരമായ സാഹചര്യങ്ങളായിരുന്നു അതുപോലെ ടി വി കാണുന്നതിനുതന്നെ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ ചിലപ്പോൾ ടി വി ഉണ്ടാവത്തുള്ളുവല്ലോ അപ്പോൾ അയലത്തുള്ള വീടുകളിലുള്ള ആളുകളെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിരുന്നായിരിക്കും അവിടെ നിന്നു ടി വി കാണുന്നത് അന്ന് ഭാഷ പോലും നോക്കത്തില്ല മലയാളം ചാനലുകൾ മലയാളം ചാനലുകൾ ആഴ്ച്ചയിൽ രണ്ടു ദിവസം ഒക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ഹിന്ദി കണ്ടാൽ മനസ്സിലാവത്തില്ലെങ്കിൽ പോലും ഹിന്ദിയും കാര്യങ്ങളും തന്നെ എല്ലാവരും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ അതേപോലെ വാർത്ത കേൾക്കുന്ന ദൂരദർശൻ്റെ വാർത്തകളൊക്കെ കേൾക്കാൻ വേണ്ടി വളരെ വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ ആഗ്രഹത്തോടുകൂടി ഓടി വന്നിരുന്ന് കേൾക്കുന്ന സാഹചര്യം ആണ് ഇപ്പം അത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇൻറ്റർനെറ്റിൽ തന്നെ കിട്ടുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിനകത്ത് തന്നെ അതെല്ലാം കിട്ടുന്നുണ്ട് അതുകൊണ്ട് പണ്ടത്തെ പണ്ടത്തെ സാഹചര്യത്തിൽ നിന്നും ഇപ്പം ആളുകൾക്ക് ടൈം ഇല്ല എന്നുള്ളൊരു സംവിധാനം സാഹചര്യമായ് മാറിയിരിക്കുകയാണല്ലോ പണ്ട് അങ്ങനെ അല്ലല്ലോ എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും എടുക്കുന്നതിനും എന്ത് കാര്യങ്ങൾക്കും ഒരു കാര്യം ഒരു വീട്ടിൽ ഒരു വിശേഷം വന്നാൽ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും അവരെല്ലാവരോടും സ്ത്രീകൾ ജനങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഓരോ ജോലികൾ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും അതേപോലെ പുരുഷന്മാരും അവരുടേതായിട്ട് കാര്യങ്ങളെല്ലാം അവർ ഒരുമിച്ച് കൂട്ടത്തിൽ എല്ലാം ചെയ്ത് തീർക്കുകയൊക്കെ ചെയ്യുന്നു ഇപ്പോൾ എല്ലാം ഇൻ്റർനെറ്റ് യുഗത്തിൽ എല്ലാവരും പരസ്പരം ആളുകളെ പോലും അറിയാൻ വയ്യാത്ത സാഹചര്യം ആയിട്ട് മാറുന്ന മാറിയിരിക്കുകയാണ് അതുകൊണ്ട് സാങ്കേതികവിദ്യ കാരണം വിനോദം നമുക്ക് നഷ്ടപെട്ടുവെന്ന് തന്നെ വിനോദം നമുക്ക് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെയുള്ള വിനോദങ്ങൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷേ ഇവിടെ ഇരുന്നുകൊണ്ട് മറ്റു മറ്റു രാജ്യങ്ങളിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ എന്തൊക്കെ ഉണ്ട് എന്ന് കാണാമെന്നുള്ളൊരു കാണാം എന്നുള്ളൊരു പോസിറ്റിവിറ്റിയും സാങ്കേതികവിദ്യകൊണ്ട് നമുക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്